ആ ഞാൻ നേരത്തെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് റദ്ദാക്കേണ്ടി വന്നു ഞാൻ അതിന് പൈസ അടച്ചിട്ടുണ്ടായിരുന്നു ആ അതെ അതെ കുറച്ച് മുന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ അതെ അതെ അതെ അപ്പം പൈസ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഒരു അർജൻറ്റ് ആയിട്ട് ഞാൻ ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് പോവേണ്ട ഒരു ആവശ്യം ഇല്ല അതെ അതെ അതെ ആ എൻ്റെ ജോലി സ്ഥലത്തേക്ക് ആയിരുന്നു അപ്പം അവിടെ കുറച്ച് നാളത്തേക്ക് ലീവ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് പോവേണ്ട ഒരു ആവശ്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ട എന്ന് വെച്ചത് അപ്പം ഞാൻ അത് ഫോൺ പേ വഴിയാണ് ഞാൻ അതിന്റെ അയച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അതെ രണ്ടായിരം രൂപയാണ് ഞാൻ അയച്ചത് അപ്പം അത് എനിക്കൊന്ന് തിരിച്ച് റീഫണ്ട് ആയിട്ട് ഒന്ന് ഇട്ട് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഓ അങ്ങനെ ജി പേ വഴി നിങ്ങൾക്ക് തിരിച്ചിടാൻ പറ്റില്ല ആ ഓക്കെ ഓക്കെ അപ്പം റീഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഓക്കെ അപ്പം ഓക്കെ ആ അങ്ങനെ ആണെങ്കിൽ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പം വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം അതിലേക്ക് ഒന്ന് അയച്ചുതരണേ ഇല്ലെങ്കിൽ ഞാൻ അല്ല എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ പോയേനെ അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഒന്ന് ഞാൻ ബാങ്ക് അക്കൗണ്ട് ഇട്ടുതരാം ഒന്ന് അതിനകത്തേക്ക് അയച്ചേക്കൂ കേട്ടോ ഓക്കെ എന്നാൽ